ഹലോ അറേബ്യൻ ഹോട്ടലല്ലേ ഞാൻ നേരത്തെ ഒര് ആറ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ ചിക്കൻ ബിരിയാണി ആ ഞാൻ ഡെലിവറി ബോയിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കുറച്ച് നേരമായി പക്ഷെ ആൾ കോൾ എടുക്കുന്നും ഇല്ല തിരിച്ചിങ്ങോട്ട് ഇതു ഇത്രയും നേരമായിട്ടും കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല ആ അതെ ഞാൻ കുറച്ചു നേരമായിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ അവറിനു മേലെ ആയി ആ അപ്പോൾ എത്ര ടൈമിനിയും ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഓക്കേ ആ ആ ഓക്കേ ആ ആ അതെ ആ നമ്പറിൽ തന്നെയാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ ആള് കോള് കണക്റ്റാവുന്നില്ല കോളെടുക്കുന്നില്ല

ആ അതെ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ ഈ നമ്പറിൽ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നതും അപ്പോൾ ആളോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ ഇനിയിപ്പോൾ എത്ര ടൈം ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം എന്നറിയാൻ വേണ്ടീട്ടാണ് ആ ഓക്കേ അതെ അതെ ബില്ല് പേ ചെയ്തതായിരുന്നു നേരത്തെ തന്നെ ആ അതെ അതെ ഓക്കേ ഓക്കേ താങ്ക് യൂ